കുട്ടികളുടെ കളി ഇപ്പോൾ ഫോണിൽ ഗെയിം കളിക്കുക പാമ്പിൻ്റെ കളി കളിക്കുക ലൂഡോ കളിക്കുക പിന്നെ കാർട്ടൂൺ കളിക്കുക പിന്നെ ടി വി കാണുക അതല്ലാതെ വേറെ മണ്ണിലുള്ള കളിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല പിന്നെ കണ്ണാടം പൊത്തി കളിക്കുക കസേരക്കളി കളിക്കുക ഈ വക കണ്ട കളികളാണ് ഇപ്പോഴത്തെ കുട്ടികളെ കളി അല്ലാതെ വെറും അടിമ ആയിട്ട് ഫോണിൽ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നത് വേറെ ഒരു കളിയും ഇപ്പോൾ കുട്ടികൾ കളിക്കാറില്ല മണ്ണ് പണ്ടത്തേനെ പോലെ മണ്ണൊന്നും വെയിലത്ത് നിന്ന് ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കാറില്ല ഫോണിനടിമയായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാത്ത പക്ഷം വേറെ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നില്ല വീടിൻ്റെ ഉള്ളിൽ നിന്നുതന്നെ ഉള്ള കളിയാണ് കുട്ടികൾ കളിക്കുന്നത്